ജൈവ വളമാണ് കൃഷിക്ക് ഏറ്റവും നല്ലത് പക്ഷേയിപ്പം അങ്ങനെയല്ല എന്നും ജൈവ രാസവളങ്ങളെല്ലാമായിട്ടും രാസവളങ്ങൾ കൂടുതലായിപ്പോയാൽ കൃഷിയിൽ യിൽ നിന്നും നമുക്കാദായമൊന്നും കിട്ടാറില്ല കിട്ടുകയില്ല അത് അങ്ങനെ ആയതു കൊണ്ട് കൂടുതലും ജൈവവളത്വം ജൈവ വളമാണ് ജൈവ വളം ആണ് കൂടുതലുമായിട്ടിടുന്നത് രാസവളം ഇട്ട് നമുക്ക് അനുഭവമുള്ളതു കൊണ്ട് നമ്മൾ രാസവളം കുറച്ചിട്ട് ജൈവ വളമാണ് ഇട് ഇട്ട് കൃഷി പ്രത്യേകിച്ച് ഏലത്തിനൊക്കെ രാസവളം ഇട്ടാൽ ഒക്കെ വേനലാകുമ്പം കരിഞ്ഞും മഴക്കാലമാകുമ്പോൾ ചേച്ചിൽ പിടിച്ചും അങ്ങനെയെല്ലാം പോകും അതു കൊണ്ട് നമ്മൾ ഒത്തിരിയും ജൈവ വളം ഇട്ടാണ് കൃഷികളെല്ലാം അങ്ങനെ മുൻപോട്ടു കൊണ്ടു പോകുന്നത് ഞാൻ ജൈവവളം നമുക്ക് വീട്ടിൽത്തന്നെയുണ്ടാക്കാം ചാണകപ്പൊടിയും പിന്നെ ചാരം ചാണകപ്പൊടി അങ്ങനെ അതിൽ വേണ്ട സാധനങ്ങളെല്ലാം ഇട്ട് നമുക്ക് വീട്ടിൽത്തന്നെയുണ്ടാക്കാം ജൈവ വളം അങ്ങനെയും കൂടുതലുമായി ഇടുന്നത് ചാണകമാണ് കൂടുതലും ഉപയോഗിക്കുന്നത് ചാണകം ചാണകമിട്ട് നട് നടുകയാണെങ്കിൽ അതിന് എളുപ്പമില്ല രാസവളം അധികം ചേർക്കാത്ത രാസവളം രാ ഇന്നിപ്പം രാസവളമാണ് പണ്ടൊക്കെയാണ് ജൈവ വളവും എല്ലാം ഇട്ട് കൃഷി ചെയ്യുന്നത് ഇപ്പം ജൈവ വളത്തിലോട്ട് എല്ലാവരും തന്നെ ഇപ്പം കൃഷി ജൈവവളത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അതാണ് എൽ എല്ലാവർക്കും കൃഷിയിലുണ്ടാകുന്ന വ്യത്യാസം നമ്മളും ആരോടെങ്കിലും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽത്തന്നെ നമ്മളും പറയുന്നത് രാസവളം കൂടുതലായിട്ടുപയോഗിക്കാതിരിക്കുക ജൈവവളം ഉപയോഗിക്കുക കൂടുതൽ വിഷമുള്ള മരുന്നുകളൊന്നും അടിക്കാതിരിക്കുക നമുക്കുണ്ടാക്കാം പുകയില കഷായം അങ്ങനെയുള്ളത് ചെറിയ ചെറിയ മരുന്നടിക്കാനുള്ള ചില മരുന്നുകളൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതേയുള്ളൂ അങ്ങനെയൊക്കെ അടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് കൃഷിയിൽ കുറേയൊക്കെയൊരു മാറ്റം വരുന്നത്